ഇത്തരം ശേഖരമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം സ്റ്റാമ്പ് കല്ല് നാണയം അതൊന്നും അങ്ങനെ ഒരു ദിക്കിലും ശേഖരിച്ചിട്ടില്ല സ്റ്റാമ്പ് തീരെ ചെറുതായിരുന്ന നേരത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റാമ്പ് കളക്ഷനൊക്കെ എല്ലാ പിള്ളേരും ചെയ്യണതല്ലേ കുറച്ച് കാലമൊക്കെ ചെയ്യും പിന്നെ കല്ല് അതൊരു പ്രായം വരെ നമുക്ക് വലിയ കൗതുകമാണ് എവിടെ നല്ല സൈസ് കല്ലു കണ്ടാലും നമ്മൾ എടുത്തു വെക്കും പക്ഷെ പ്രത്യേകിച്ച് ഒരു ഡാറ്റബേസ് ഒന്നുമില്ല കാണാൻ കൊള്ളാവുന്ന എന്ത് കല്ലു കിട്ടിയാലും സൂക്ഷിച്ചു വെക്കും കുറച്ച് വലുതായപ്പം അതിൽ പെയിൻ്റ് അടിക്കും അതു കഴിയുമ്പോൾ അത് ചെടിച്ചട്ടിയുടെ ചുവട്ടിലിടും അങ്ങനെയൊക്കെയാണ് യുഷ്വലി ഉള്ള ട്രെൻഡ് അത്തരം കാര്യങ്ങളൊക്കെയേ ചെയ്തിട്ടുള്ളു സ്റ്റാമ്പ് ഒരു കുഞ്ഞ് ആൽബമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനങ്ങനെ ഒരു ഡേറ്റബേസ് പിടിപ്പിക്കാൻ മാത്രമുള്ള സ്റ്റാമ്പൊന്നും കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കിട്ടിയ സ്റ്റാമ്പുകളെ അടുക്കിയിട്ടുണ്ട് പിന്നെ അതങ്ങനെ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ ഒരു ഹോബി ആക്കിക്കൊണ്ട് നടക്കുന്ന കാലത്ത് ഇതെങ്ങനെ അടുക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള അതിനെപ്പറ്റിയിട്ട് വലിയ ഒരു ധാരണ ഒന്നും ഇല്ലായിരുന്നു അത്രയും ഗൈഡൻസൊന്നും കിട്ടിയിട്ടും ഇല്ല അതുകൊണ്ട് കിട്ടിയ സ്റ്റാമ്പിനെ എല്ലാം ഒരു ആൽബത്തിൽ അടുക്കി വെച്ചു എന്നാൽ അപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടിയൊക്കെ രാജ്യം തിരിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻ്റ് തിരിച്ചോ ഒക്കെ ചെയ്യാമായിരുന്നു എന്നു തോന്നിയിട്ടുണ്ട് പിന്നെ കല്ലുകളൊക്കെ ആണെങ്കിലും ഈ കാലത്തിൽ പറഞ്ഞതുപോലെ വലിയ കല്ല് ചെറിയ കല്ല് അങ്ങനെയൊക്കെ തിരിച്ചു വെക്കാറുണ്ട് കല്ലുകളുടെ ആർട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ചെയ്താൽ കൊള്ളാം എന്നു തോന്നുന്ന കല്ലുകളെ വേറെ പ്രത്യേകം വെക്കും അല്ലാത്ത ഭംഗിയുള്ള കല്ലുകളെ ചെടിച്ചട്ടികളിൽ നിക്ഷേപിക്കും അതൊക്കെയാണ് പൊതുവായിട്ടുള്ള രീതി നാണയം അത്രമേൽ കളക്ഷൻസൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ കുഞ്ഞുകാലത്തെ വേറൊരു ശേഖരം കുപ്പി വളയായിരുന്നു ആ കാലങ്ങളിലിങ്ങനെ കുപ്പിവളപ്പൊട്ടുകൾ ശേഖരിക്കുകയും അതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനു വേറെ ഡേറ്റബേസ് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളൊന്നും അവലംബിച്ചിട്ടില്ല ആ ഒരു കൗതുകത്തിന് വേണ്ടി ശേഖരിക്കുന്നു അത് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് സീരിയസ്സായിട്ട് ഇത്തരം ഒരു ഹോബികളെ എടുത്തിട്ടില്ല ചെയ്തിട്ടും ഇല്ല എന്നുളളതാണ് വാസ്തവം അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി കുറേക്കൂടി അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാമെന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നത് പണ്ടത്തെക്കാലം ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ കുട്ടികൾക്കും ഇല്ല കുട്ടികൾക്കൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് പേരൻ്റ്സിനും അറിയത്തില്ല പക്ഷെ ഈ കാലത്തുള്ള കാരണവന്മാർക്കൊക്കെ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറേക്കൂടി അതിനൊരു ഗൈഡൻസ് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് ഇപ്പം സ്റ്റാമ്പൊക്കെയാണ് കളക്ട് ചെയ്യണതെങ്കിൽ അതിനെ രാജ്യങ്ങൾ അനുസരിച്ച് എടുക്കു അല്ലെങ്കിൽ ഭൂഗണ്ഡങ്ങളനുസരിച്ച് അടുക്കി വയ്ക്കു എന്നൊക്കെ പറയാം അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കാം കല്ലുകളൊക്കെയാണെങ്കിലും അത്തരം ആർട്ടുകളെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്താം അല്ലെങ്കിൽ വൻ കുപ്പിവള കളക്ഷനുകളൊക്കെ ആണെങ്കിൽ കളറും നിറവും അുസരിച്ചത് ക്രാഫ്റ്റ് ചെയ്യുന്ന ഐഡിയാസൊക്കെ പറഞ്ഞുകൊടുക്കാം അത്തരം ഗൈഡൻസൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അത് മനുഷ്യൻ്റെ ഒരു വിനോദവും വിജ്ഞാനവും ഒരുപോലെ ചെയ്യുന്ന തരുന്ന കാര്യമാണ് പിന്നെ ഇതിനൊരു ഡേറ്റാബേസ് അവലംബിച്ചാൽ പിന്നെ ഈ കാലം കുട്ടിക്കളത് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും എന്നു തോന്നുന്നു